ആ സാറേ ജോസഫ് സാർ ആണോ ആ ഞാനേ ഒരു സലത്തിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ആയിരുന്നു സാറ് എവിടാ ഓ ഹോ ഹോ ഹ് സാറ് ഈ റിയൽ എസ്റ്റേറ്റ് മാത്രം കോൺസെണ്ട്രേറ്റ് ചെയ്ത ആളാണോ ഓഹ് ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി ശരി എനിക്കേ കുറച്ച് സ്ഥലം ഒന്ന് മേടിക്കണം എന്ന് ഉണ്ടായിരുന്നേ എന്താ പറയുക അതിൽ മേടിച്ച് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം മേടിച്ച് ഇത് പോലെ ചെറിയ പ്ലോട്ട് ആക്കി വിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സ്ഥലം ആഹ് ഒരു ഒരു പത്ത് പ്ലോട്ട് ആയിട്ടെങ്കിലും വിൽക്കാനായിട്ട് ഒരു അമ്പത് സെൻ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി അഞ്ച് സെൻറ്റ് വെച്ചേ ആഹ് ആഹ് അഹ് ഓ ഓ

ഓഹ് ഹോ ഹോ അതേ അതേ സർ ഇപ്പം എങ്ങനെയാ മാർക്കറ്റ് റേയ്റ്റ് ഒക്കെ എങ്ങനെയാ ഈ വഴി ഉള്ള സലത്തൊക്കെ

ഓഹ് ഹോ ഓഹ് ഹോ ആ ഓക്കേ ആഹ് ഓക്കേ നമുക്ക് അതിന് ഈ ഫിനാൻസ്സ് ഒക്കെ റെഡിയാക്കി കിട്ടുമായിരിക്കുമോ ഇങ്ങനെ സ്ഥലത്തിന്

ശരി ശരി ആ അതെ അതെ നമുക്ക് സ്ഥലം ഒക്കെ ഒന്ന് കാണണമെങ്കിലേ എന്നത്തേക്ക് ഒക്കെ വരണമായിരിക്കും ആ ഹാ ഓക്കെ ഓക്കേ ശരി ആ ഹ ഹ ഹ ഏകദേശം ഈ തോട്ടക്കാട്ട് സൈഡിൽത്തന്നെയാണോ അതോ പുതുപ്പള്ളി സൈഡിലോട്ട് ഒക്കെ വല്ലതും ഉണ്ടോ അകത്തോ ഓ ശരി ശരി ആണ് ആണല്ലേ ആ അതെ അതെ അതെ ആ പള്ളിയോട് അടുത്ത് ആണെങ്കിൽ നല്ലതായിരുന്നു മറ്റേ ഒത്തിരി പേർ പള്ളി അടുത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഹാ മ് മ് ഓക്കേ ശരി ശരി ശരി ശരി ഓരോരുത്തർക്കും വഴി ഒക്കെ ഉണ്ടല്ലേ അതെ ആ നമുക്ക് എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാവേ ഇപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഓക്കേ ഓക്കേ മ് ശരി